തേനീച്ചകളുടെ കുത്തലകറ്റാൻ എൻ്റെ നാട്ടിൽ ചെയ്യുന്നതെന്താന്ന് വെച്ചാൽ ആയുർവേദങ്ങളിൽ ഒരു ഗുളിക കിട്ടും വിൽവാദി ഗുളിക എന്നാണ് പേര് അപ്പോൾ അത് ഒന്നെങ്കിൽ ഒരെണ്ണം കഴിക്കുക ഒരു ഫുൾ ടാബ്ലറ്റ് കഴിക്കാം പിന്നെ അതിൻ്റെ പകുതി ഒരു ടാബ്ലറ്റിൻ്റെ പകുതിയെടുത്ത് അത് വെള്ളത്തിൽ ചാലിച്ച് കുത്തിയ സ്ഥലത്ത് പുരട്ടാം ഇതൊരു ചെയ്യുന്നത് ഒരു ട്രീറ്റ്മെൻ്റാണ് രണ്ടാമത്തേത് എന്താന്ന് വെച്ചാൽ മഞ്ഞള് തേക്കുന്നത് കണ്ടിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ നാട്ടിൽ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്